പാലക്കാട് ജില്ലയിലെ ഒട്ടുമിക്ക ജനങ്ങളും അനുഭവപ്പെടുന്ന ഒര് കഷ്ടപ്പാട് എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അധികം സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒര് ജില്ലയല്ല പാലക്കാട് എന്നിരുന്നാലും അവിടെയുള്ള എല്ലാ കുട്ടികളിലും തന്നെ വിദ്യാഭ്യാസം നേടണമെന്നൊരു ഉദ്ദേശത്തിൽ നടക്കുന്നവര് തന്നെയാണ് അപ്പോൾ അവര് പ്രൊഫഷണൽ കോഴ്സ് അല്ലാതെ തന്നെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ ആട്സും സയൻസും പോലെയുള്ള വിഷയങ്ങളിൽ എടുത്തിട്ടും അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ജോലി നേടുക എന്നുള്ളത് ഭയങ്കര വലിയ കഷ്ടപ്പാടുള്ളൊരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് അവരെ സംബന്ധിച്ചെടുത്തോളം അവരുടെ വീട്ടുകാരെ സംബന്ധിച്ചെടുത്തോളം വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് ആവശ്യത്തിലുള്ള ഡിഗ്രിയും പീ ജിയുമൊക്കെ ഉണ്ടായിട്ട് പോലും അവർക്ക് ജോലി ലഭിക്കാത്ത സാഹചര്യത്തിലേക്കാണ് പോകുന്നത്